സാങ്കേതിക വിദ്യകളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് അതായത് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷത്തേക്ക് നമുക്ക്റന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ വന്ന് വന്ന് സോഷ്യൽ മീഡിയില്ലാതെ സോഷ്യൽ മീഡിയില്ല സാമ്പത്തിക ഒരഡ്വാൻസ് ടെക്നോളജികളൊന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റേലാത്ത അവസ്ഥയിലാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും ഇത്രയും ടെക്നോളജിക്കലി അപ്ഡേറ്റായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു എല്ലാ എല്ലാത്തിനും ഇപ്പം ബാങ്കി പോവാനാന്നേലും മറ്റ് ഇപ്പോൾ എലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ ആണേലും എല്ലാം പോയിയാണ് ആൾക്കാർ ശീലിച്ച് വന്നത് പെട്ടന്ന് ഇതിൻ്റെ എല്ലാ പ്രവർത്തനം ഒരു ഒരൂ ചില്ല ഒരു ഫോണിലായപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുകൾ അതായത് ഒരു പഴയ തലമുറ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എഴുപത് എഴുപതിന് മുന്നം ജനിച്ച് പലവർക്കും ഇപ്പോഴും ഇതൊന്നും ഉപയോഗിക്കാനുള്ള ഇതായിട്ടില്ല അവർ ഇപ്പോഴും സാ സ ഇപ്പർത്തെ ആധുനിക സാഹിത്യ വിദ്യയായിട്ട് അത്രം പൊരുത്തപ്പെട്ടിട്ട് ഇല്ലെന്ന് തന്നെ പറയാം അതുകൂട്ടത്തിന് ഒത്തി പ്രശ്നം എന്നിരുന്നാൽ തന്നെ ഒരു ആയിരത്തി തൊണ്ണൂറ് ശേഷം ജനിച്ച മിക്ക അവർക്കും മറ്റെ മോഡേൺ സ ടെക്നോളജി പറ്റി വെൽ വെൽ അവയഡാണ് വെൽ അവേരാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിയില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റിയേല ആർക്കും ജീവിക്കാൻ പറ്റിയേല ഈ കറൻ്റ് ബില്ലൊട്ട് ബാങ്കിലെ എല്ലാ സാധനങ്ങളും ഇപ്പം വരുന്ന ഫോണിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ ഇതിനും നമ്മൾ ഫോൺൻ്റെ ഉപയോഗം ഉപയോഗം അത്യാവശ്യം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പാ ഇതൊരു സ്കൂളിൽ പാഠ്യ സബ്ജെക്റ്റാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ തലമുറയിലെ എല്ലാവർക്കും ഒരു പോലെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല ചിലപ്പം പാവപ്പെട്ട വിട്ടിലെ പിള്ളാർക്ക് ഒക്കെ ഫോണ് ടാബ്ലറ്റ് ഇതുകൂട്ടുള്ള സ അതുകൂട്ടുള്ള സാധനം ഇപ്പോഴും എതാണ്ട് വീടുകളിലുണ്ട് അവർക്ക് ഒക്കെ ഇതൊക്കെ വളരെ അവർക്ക് ഒക്കെ ഇതൊക്കെ ഇപ്പോഴും എന്തൊരു കാണാഘനിയാണ് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാർ സർക്കാർ സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഇതിന്റെ ഒരു സബ്ജെക്റ്റാക്കി തന്നെ പഠിപ്പിക്കണം എങ്ങനെ ആധുനിക വിദ്യ ഉപയോഗപ്പെടുത്താൻ അതായത് അതായത് ഇപ്പോൾ ഒരുപാട് സ കുട്ടികൾ സഹ കുട്ടികൾക്കായാലും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മോഡേൺ ടെക്നോളജി യിൽ ലഭ്യമാണ് ഗൂഗിൾ അതുക്ക് ഗൂഗിൾ യൂട്യൂബ് അതുക്കു അതുകൂട്ട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതായത് എങ്ങനെ പഠനത്തിനായി അതായത് അനാവശ്യമല്ലാതെ എങ്ങനെ ശേ പഠനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന് എന്നും എങ്ങനെ എങ്ങനെ മറ്റുള്ള ഇത് നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായി ഫോൺ എടുക്കുമ്പോൾ പിള്ളേർ പിള്ളേർ ഒക്കെ ഫോണെടുക്കുമ്പോൾ പഠിക്കാൻ ഒക്കെ ആയിരിക്കും ഫോണ് മിക്കവരും എടുക്കുന്നത് പക്ഷേ മറ്റേ ആപ്പ്സ് അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതി കൂട്ടുള്ള ആപ്പ്സിലോട്ട് ഒക്കെ പോകുന്ന ഇപ്പോൾ വളരെ കൂടുതൽ കുടിവരികയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ സമയം പാഴാക്കാതെ ഇത് ഉള്ള സമയം പഠനത്തിനായി ഉപയോഗിക്കാൻ എന്ന് ഇവിടെ ഉൾപ്പെടുത്തി കൊള്ളാമായിരുന്നു അതുകൊണ്ട് തന്നെ മോഡേൺ മോഡേൺ ടെക്നോളജിം സ്കൂൾൽ സ്കൂളിൽ ഒരു സബ്ജെക്റ്റാക്കി തന്നെ ഇത് ഇത് ചെയ്യണം കാരണം ഇന്നത്തെ കാലത്ത് ടെക്നോളജിയില്ലാതെ ഒന്നും തന്നെയല്ല വിത്ത് ഔട്ട് ടെക്നോളജി ദ വെൽഡ് ഈസ് ബിഗ് സിറോ എന്ന എന്നൊരു എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ വലിയ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ എന്നതാന്ന് വെച്ചാൽ സബ്ജെ സബ്ജെ ടെക്നോളജി എന്നൊരു ഒരു കമ്പ്യൂട്ടർന്ന് ഉപരി തന്നെ ടെക്നോളജി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊരു പ്രൈവറ്റ് സ്കൂളിൽ മാത്രമല്ല സി ബി സി ബി സി കൂട്ടും പ്രൈവറ്റ് സ്കൂളിൽ മാത്രമല്ല സർക്കാർ സ്കൂളിൽ അതായത് സമൂഹത്തിലെ എല്ലാ തരത്തിലും ഇത് ഈ എത്തിപ്പെടണം എന്നാലെ ഇത് പൂർണമായി നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിജയം കണ്ടെത്തു